ഏത് സ്റ്റുഡൻറിൻ്റെ ആ അതെ അതെന്താണ്

അത് ശരി ഞ ഓൻ മ്പളെ വീട്ടിലൊന്നും കുഴപ്പമില്ല നല്ല കുട്ടിയാണ് സ്കൂളിൽ ഇനിയിപ്പോൾ എന്താണെന്നുള്ളത് ഉം ഞാൻ അവിടെ വന്നിട്ട് ഒന്ന് പറഞ്ഞ് നോക്കട്ടെ അങ്ങനെ ചെവിടുന്ന് ക്ലാസ്സിൽ നിന്ന് കാണുവാണെങ്കിൽ അതൊന്ന് പറഞ്ഞ് തിരുത്തി നോക്കിയേ അങ്ങനെ ചെയ്യാൻ പാടില്ല എന്നൊക്കെ അതെയോ എന്നിട്ടും അങ്ങനെ തന്നെ ആ എന്നാൽ ഞാൻ വീട്ടിലൊന്ന് വന്നിട്ട് സ്കൂൾ വിട്ട് വരാനായിട്ടില്ല സ്കൂൾ വിട്ട് വന്നിട്ട് ഞാനൊന്ന് ചോദിച്ച് നോക്കട്ടെ ആ വേറെ കുട്ടികളും അങ്ങനെ വികൃതിയായിട്ട് എല്ലാം ഉണ്ടാവില്ലേ ഉം ഉം

ഏതായാലും നിങ്ങളേ ഒന്നുകൂടി അവനെ ഒന്ന് ഉപദേശിച്ച് നോക്കൂ ഞാൻ ഇവിടെ വരുമ്പോൾ നല്ലോണം നാല് ചീത്തയൊക്കെ പറഞ്ഞ് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാം നിങ്ങൾ സ്കൂളിൽ നിന്ന് നിങ്ങളെ കഴിവിൻ്റെ പരമാവധി ഒന്ന് ഉപദേശിച്ച് കൊടുത്ത് നോക്കൂ ഇല്ലെങ്കിൽ നല്ല അടി കിട്ടും ഏ അങ്ങനെയൊക്കൊന്ന് പറഞ്ഞ് നോക്കൂ എന്താണെന്നുവെച്ചാൽ ഇവിടുന്ന് ഞാൻ നല്ലോണം പറഞ്ഞ് നന്നാക്കി കൊടുക്കാം ശ്രമിക്കാം അവന് പഠിക്കാൻ ഭയങ്കര മടിയാണ് പക്ഷേ ഇവിടെയൊക്കെ നല്ല കുട്ടിയാണ് ഇവിടെ ഒക്കെ വീട്ടിലൊക്കെ അവൻ നല്ല ഉഷാറ് കുട്ടിയാണ് പിന്നെ അവിടെ എങ്ങനെ ഇങ്ങനെ വരുന്നത് എന്നുള്ളത് നമുക്ക് അറിയില്ലല്ലോ സ്കൂളിൽ വരുമ്പം നിങ്ങൾ പറയുന്നു അതെയോ ആ ആ ആയിക്കോട്ടെ എന്നാൽ അവനെ ഒന്നുകൂടി നിങ്ങൾ ശ്രദ്ധിക്ക് കേട്ടോ ഉം ആയി